കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണത്തിന് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കി അവിയൽ ഉണ്ടാക്കി മസാലക്കറി ഉണ്ടാക്കി കൂട്ടുകറി ഉണ്ടാക്കി പിന്നെ അത് അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കി എലിശ്ശേരി ഇതിൽ എലിശ്ശേരിയിൽ അവർക്കത് പുളി കൂടുതൽ ആണെന്ന് പറഞ്ഞു അവിയലിൽ പുളി കമ്മിയാണെന്ന് പറഞ്ഞു ആ ഒരു കുഴപ്പമേ പറഞ്ഞിട്ടുളളൂ പിന്നീട് ഉള്ള ദിവസങ്ങളിൾ ഞാൻ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഉണ്ടാക്കിയതെല്ലാം നല്ല ക്ലിയർ ആയി എന്നാണ് ഭാര്യയും മക്കളും പറഞ്ഞത് കുടുംബത്തിലുള്ളവർ ഓരോരുത്തരും അങ്ങനെ കഴിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി പിന്നീട് ഞാൻ ഒരു ദിവസം കപ്പ പുഴുങ്ങിയിട്ട് അതിൽ അതിൽ ഞങ്ങൾ മീൻ കറി ഉണ്ടാക്കി മത്തി ആയിരുന്നു കറി ആ കപ്പയിലേക്ക് മത്തി കറി ഒഴിച്ച് കഴിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല നന്നായിട്ടുണ്ട് കുടമ്പുളി ഇട്ട് ആണ് ഇണ്ടാക്കിയിരുന്നത് അത് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നീട് ഒരു ദിവസം ഇങ്ങനെ വീട്ടില ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭാര്യ പറഞ്ഞു നമുക്ക് കുറച്ചു ബിരിയാണി ഉണ്ടാക്കിയാലോ പറഞ്ഞു അവൾ പറഞ്ഞു ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു രണ്ട് കിലോ ചിക്കൻ വാങ്ങിയിട്ട് അതിലേക്ക് ഒരു രണ്ടു കിലോ അരിയും വാങ്ങി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി അതിൽ അതിൻ്റെ കൂട്ടുകളൊക്കെ ചെർത്ത് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അവർ അത് കഴിച്ചിട്ട് പറഞ്ഞു ഇത് നന്നായിട്ടുണ്ട് കുറച്ചു കൂടി വേവ് ആവാനുണ്ട് എന്നൊരു കംപ്ലെയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറെ കംപ്ലെയിന്റ് ഒന്നും പറഞ്ഞില്ല അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നീട് ഞാൻ അതങ്ങനെ തുടർന്നുകൊണ്ടു പോയി അങ്ങനെ പാടത്തിൽ നിന്ന് കിട്ടുന്ന ഈ പുഴയിൽ കിട്ടുന്ന മീൻ കൊണ്ടുവന്ന് അത് കറി വെച്ച് കൊടുത്തു അത് അവർക്ക് ഇഷ്ടപ്പെട്ടു ഈ പിന്നീട് മത്തി അയില അങ്ങനെയുള്ളത് ഒക്കെ ഞാൻ വറുക്കാനും പൊരിക്കാനും ഒക്കെ തുടങ്ങി അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നീട് അവർ തന്നെ അടുക്കളയിലേക്ക് വരാതായി സീരിയലും കണ്ട് ഇരിക്കാൻ തുടങ്ങി പാചകം എൻ്റെ നേർക്ക് ആയി തിരിഞ്ഞു അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പാചകം എല്ലാവരും കൂടി കൂടിയിട്ട് ചെയ്യാൻ തുടങ്ങി ഓണത്തിന് ഒക്കെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കഷണങ്ങൾ ഒക്കെ നുറുക്കി അവിയൽക്കുള്ള കഷണങ്ങൾ ഒക്കെ നുറുക്കും കൂട്ടുക്കറിക്കുള്ളത് പിന്നെ അച്ചാറ് പുളിയിഞ്ചി അതിലേക്കുള്ള പൊടികൾ അതൊക്ക ഇട്ട് അവർ മസാല ഒക്കെ ചേർത്തു തരും കോഴിയോക്കെ വയ്ക്കുമ്പോൾ മസാല ഒക്കെ ചേർത്തു തരും അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ ഓരോ പാചകങ്ങളും ചെയ്യൾ അപ്പോൾ അവർക്കും എനിക്കും കൂടി അത് നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞു വിരുന്നുകാരൊക്കെ വരുമ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടം ആവുന്നുണ്ടെന്നാണ് പറയുന്നത് ഇഷ്ടമായി നല്ല നന്നായിട്ടുണ്ട് വെച്ചത് ഇങ്ങനയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ ഇരുന്നിട്ട് ഓരോ ചർച്ച ചെയ്യും പാചകത്തിനെ പറ്റിയിട്ട് അത് അങ്ങനെ ഉണ്ടാക്കാം നമുക്ക് ഇനി ഇനി അടുത്ത പ്രാവശ്യം ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കാം അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കി നോക്കാം അല്ലെങ്കിൽ എലിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പഠിച്ചു നോക്കാം അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചർച്ച ചെയ്ത് ഞങ്ങൾ വീട്ടിൽ അങ്ങനെ ഓരോ പാചകത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടത്താൻ തുടങ്ങി അങ്ങനെ ചിക്കൻ പൊരി അതുപോലെ ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ മുട്ടക്കറി മുട്ട റോസ്റ്റ് അതൊക്കെ ഞങ്ങൾ ഓരോന്നും വീട്ടിൽ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി പിന്നെ മുട്ട ഉള്ളിയിൽ ഇട്ട് വറുത്തെടുക്കുന്ന ഒരു ഐറ്റംസ് ഉണ്ടേനു അത് ഉണ്ടാക്കിയിട്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതായത് ഉള്ളി നല്ല വേവാതെ ഇടയ്ക്ക് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കണം ആ മുട്ടയും ഉള്ളിയും കൂടെ കൂടി കടിക്കുമ്പോൾ അത് ഒരു പ്രത്യേക രസമാണ് അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി